അത് ഹലോ ആ മീശോ ഓഫീസല്ലേ ഞാന് വിളിച്ചത് ഞാന് നിങ്ങളുടെ കയ്യിൽ നിന്ന് പര്ച്ചേസ് ചെയ്ത ഒരു പ്രോഡക്റ്റിന് എനിക്ക് പ്രോപ്പറായിട്ടുള്ള പ്രോഡക്റ്റല്ല കിട്ടിയത് കറക്റ്റ് കളറല്ല ഞാന് ചൂസ് ചെയ്തത് ചൂസ് ചെയ്തതില്നിന്ന് വ്യത്യസ്തമായ കളറാണ് എനിക്ക് ഇപ്പോൾ ഡെലിവറായി ഇരിക്കുന്നത് ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല ആ പ്രോഡക്റ്റായിട്ട് കാരണം നിങ്ങള് കാണിച്ച പിക്കില് നിന്നും വെച്ച് നോക്കുമ്പോള് ഇത് എന്റയര്ളി ഡിഫ്രന്റ് ആണ് ഞാനുദേശിച്ച കളറല്ല ഞാന് ഉദേശിച്ച ടെക്സ്ച്ചറല്ല അതിന്റെ കോട്ടണ് ഞാന് ചോദിച്ചിട്ട് എനിക്ക് പൊളിസ്റ്റര് ടൈപ്പ് ഓഫ് ബെഡ്ഷീറ്റാണ് നിങ്ങളെനിക്ക് ഡെലിവറ് ചെയ്തേക്കണത് ഇതിനെന്തെക്സ്പ്ലനേഷനാണ് നിങ്ങള് തരാ ഉദേശിക്കണത് ഏയ് എനിക്ക് ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാന് പറ്റില്ല കാരണം ക്വാളിറ്റീ എന്ന് പറയുന്നത് അത്ര അധികം മോശമാണ് ഇത് ഒന്ന് അലക്കിയെട്ത്ത് കഴിഞ്ഞാൽ തന്നെ അത് കേടാവുന്ന തരത്തിലുള്ള പ്രോഡക്റ്റാണ് ഇപ്പം എനിക്ക് കിട്ടിയേക്കണത് അപ്പോൾ അതില്നിന്ന് ആ അതെ അതെ അതെ ഒന്നെങ്കിൽ എക്സ്ചേഞ്ചിന് താല്പ്പര്യമില്ല ബെറ്റെർ എനിക്കൊന്ന് പ്രോഡക്റ്റിനിത് വേണ്ടി ഫണ്ടൊന്ന് റീഫണ്ട് ചെയ്ത് തന്നാൽ നന്നായിരിക്കും അതേയതെ ഇല്ലില്ല വേണ്ട വേണ്ട ഏയ് അല്ലല്ല അങ്ങനെത്തല്ല ഞാനുദ്ദേശിച്ചത് പ്രോഡക്റ്റ് എന്ന് പറയ്ന്നത് നല്ല കോട്ടന്റെ ആയിരുന്നു നല്ല ടെക്സ്റ്റര് ഡിസൈനൊക്കെ ഫ്ലവേര്സ് പ്രിന്റടാരുന്നു ഞാനുദേശിച്ചത് പക്ഷേ എനിക്ക് വന്നേക്കുന്നത് അങ്ങനെത്തെയല്ല പോരാഞ്ഞ് ഭയങ്കര ഡേര്ട്ടി കളറാണ് അതിൽ നിന്ന് പറ്റ് പറ്റിപ്പിടിച്ചിരിക്കണത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സര്വീസ് നിങ്ങള് കുറച്ചും കൂടി മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു അല്ലെങ്കിലിത്രയ്ക്കധികം മോശാമാകാൻ ചാന്സില്ലല്ലോ ആ അതേയതെ അതെ അതിൽ നിന്ന് പിന്നെ പോളിസ്റ്ററിന്റെ തുണിയുടെ ഇത് പൊട്ടി പൊട്ടി പോരുകയാണ് പുറത്തേയ്ക്ക് അതെ അതെ അത് കുറച്ചും കൂടിയൊന്ന് പ്രോപ്പറായിട്ടാണെങ്കില് പിന്നെയും കൊഴപ്പില്ലാരുന്നു ഇതത്രക്കും മോശമായത് കൊണ്ടാണ് ആ ഇതില്നിന്ന് ദയവ് ചെയ്ത് റീഫണ്ട് ചെയ്യണം ഓക്കെ ആ